ശവസംസ്കാര ചടങ്ങുകളെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ദൂരെയുള്ള എല്ലാ ബന്ധുക്കളെയും അറിയിക്കും പിന്നെ അതുപോലെ എല്ലാ ബന്ധുക്കളും അതായത് വരുമെന്ന് പറയുന്ന എല്ലാ ബന്ധുക്കളും വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കും ഈ ഈ ചടങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ സ്ഥലത്തുള്ള മുതിർന്ന ആളുകളായിരിക്കും ഈ ശവസംസ്കാര ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതും പറഞ്ഞുകൊടുക്കുന്നതും ചെയ്യിപ്പിക്കുന്നതുമെല്ലാം അവരായിരിക്കും പിന്നെയിതിന് പ്രധാന ചടങ്ങുകൾ ആദ്യം തന്നെ നമ്മൾ ഈ മരിച്ച ആളുടെ ശരീരത്തെ കുളിപ്പിക്കും നല്ല വൃത്തിയോടെ കുളിപ്പിക്കും എന്നിട്ടായിരിക്കും അവരെ യാത്രയാക്കുക പിന്നെ അതുപോലെ ഈ ചടങ്ങുകളെല്ലാം ചെയ്യിപ്പിക്കുന്നത് മരിച്ച ആളുടെ മൂത്ത മകനെയോ മകളോ മകനെക്കൊണ്ടായിരിക്കും ചെയ്യിപ്പിക്കുക ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഉണ്ടാകുന്ന മറ്റൊരു വ്യക്തിയെക്കൊണ്ടായിരിക്കും ഇത് ചെയ്യിപ്പിക്കുന്നത് അതുപോലെ എന്താപറയുക അടുത്തൊരു ചടങ്ങ് എന്ന് പറയുന്നത് ഇപ്പോൾ ബന്ധുക്കളായിട്ടുള്ളവർ ഈ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് പട്ട് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്ന അത് മരിച്ച ആളുടെ ശരീരത്തിൽ പുതപ്പിക്കും അത് ഓരോ ബന്ധുക്കാരും കൊണ്ടുവരും അവരുടെ താല്പര്യാർത്ഥം പട്ട് കൊണ്ടുവരും അതുപോലെ ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞാൽ ഈ അടക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകും അതിന് ശേഷം തന്നെ ഒരു സ്ഥലത്തെ മുതിർന്ന ഒരാൾ ഈ മരിച്ച ആളുടെ ഈ കർമ്മം ചടങ്ങ് അതായത് ഇതിൻ്റെ ക്രിയ എന്നാണെന്ന് തീയ്യതി എല്ലാവരെയും അറിയിക്കും അതോടുകൂടി ഈ ചടങ്ങ് കഴിഞ്ഞു